ഹലോ ഇത് ഫ്ലിപ്കാർട്ട് ഡെലിവറി ഓഫിസല്ലേ സാർ ഞാൻ മധുവാണ് വിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച്ചയില് ഒരു ഹെഡ് ഫോൺ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന് സാർ ഞാനത് ആഗ്രഹിച്ച മോഡലല്ല അതെനിക്ക് വന്നിരിക്കുന്നത് അതൊന്ന് റിട്ടേൺ ചെയ്ത് വേറെ ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാന് എങ്ങനാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒന്ന് വിശദീകരിക്കുമോ സാർ പ്ലീസ് ദയവായിട്ട് ഓക്കേ